ഞാൻ വായിച്ചിട്ടുള്ളതിൽ വച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദ്ധരണി എന്ന് പറയുമ്പോൾ ഒരുപാട് ബുക്ക് വായിച്ചിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കുമാരനാശാൻ ബുക്കിലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന വരികളാണ് ഒരുപാട് തോട്ടുകളുണ്ട് എങ്കിൽപ്പോലും ഈ തോട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നുവന്നു ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ സ്വർണ്ണക്കൂട്ടിലൊരു നമ്മളെ കൊണ്ടുവന്നിട്ടാലും നമ്മളെ എത്രയൊക്കെ ഒരു കൂട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തൊക്കെ തന്നാലും എന്തൊക്കെ നമുക്ക് സ്വർണ്ണം കൊണ്ടൊരു വീട് തന്നെ പണിത് നമ്മളെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന ജീവിതം ഒരിക്കലും നമ്മൾക്ക് കിട്ടില്ല നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും നമ്മളൊരു നമ്മളൊരു ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെന്നൊരു ഫീല് തോന്നും അതിപ്പോൾ ഒരു സ്വർണ്ണത്തിൻ്റെ കൂടാണെങ്കിലും നമ്മൾ എന്തൊക്കെ തന്നാൽ ആ കൂട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് എന്തൊക്കെ നമുക്കിത് നേടി തന്നാലും നമ്മൾ ജീവിക്കുന്നുണ്ട് നമ്മൾ സ്വാതന്ത്ര്യമായി ജീവിക്കുന്നൊരു ജീവിതം ആ അതിനകത്ത് നമുക്ക് കിട്ടില്ല അതുകൊണ്ടുതന്നെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അത് നമ്മുടെ ജീവിതവുമായി വളരെ റിലേറ്റഡാണ് നമ്മൾ എത്രത്തോളം നമ്മൾ ജോലിയെടുത്ത് സ്വാതന്ത്ര്യമായി നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്നോ അതാണ് നമ്മൾക്ക് ഏറ്റവും ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ വരികളാണ് പെട്ടെന്ന് എൻ്റെ ജീവിതത്തോട് റിലേറ്റഡായിട്ട് കിടക്കുന്നത്